ഹലോ അങ്കമാലി ഗ്രാൻറ് ബേക്കറി അല്ലേ ഞാൻ മങ്ങാട്ടുകരയിൽ നിന്ന് ജയന്തിയാണ് വിളിക്കുന്നത് ഞാൻ നിങ്ങളുടെ കടയിലേക്ക് ഒരു ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു ഓർഡർ ചെയ്ത് ഡെലിവറി എനിക്ക് എത്തിച്ചതായിട്ടാണ് എൻ്റെ ഫോണിൽ മെസേജ് വന്നിരിക്കുന്നത് അത് ഞാൻ പൈസയും അടച്ച് ഒക്കെ ചെയ്തതാണ് പക്ഷേ എനിക്ക് ഡെലിവറി ഇങ്ങോട്ട് എത്തിയിട്ടില്ല നിങ്ങൾ ആരുടെ കയ്യിലാണ് കൊടുത്തയച്ചത് എന്നുള്ളത് നിങ്ങളുടെ കടയിൽ അന്വേഷിച്ച് എനിക്ക് അത് എത്തിച്ച് തരുക അല്ലെങ്കിൽ എനിക്ക് ഇനി ബിരിയാണി ഇല്ലാഞ്ഞിട്ടാണ് ഓർഡർ നിങ്ങൾ തന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ എത്തിയിട്ടുമില്ല അപ്പോൾ ഇല്ലാഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുപകരം എന്താണ് ഭക്ഷണം എന്നുവെച്ചാൽ കഴിഞ്ഞ കൊടുത്തുവിടുക ഞാൻ പൈസ അടച്ചിരിക്കുന്നതാണല്ലോ ഭക്ഷണം കൊടുത്തുവിടുക അല്ലെങ്കിൽ നിങ്ങൾ അതിന് നിങ്ങൾ ആരുടെ കയ്യിലാണ് ഈ ബിരിയാണി കൊടുത്തയച്ചതെന്ന് വെച്ചാൽ ആ ആളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുക അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പരാതിപ്പെടും അത് നിങ്ങളുടെ ക കടയ്ക്ക് തന്നെയാണ് മോശം